നിങ്ങളുടെ പ്രദേശത്ത് അങ്ങനെ പ്രത്യേക തരം കളികളൊന്നും കളിക്കാറില്ല എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ഒരു വിധം അ സാമ്യമുള്ള കളികളാണ് ഞങ്ങളുടെ പ്രദേശത്തും കളിക്കാറുള്ളത് ഉദാഹരണത്തിന് ഓടും പന്തും കളി ചില സലങ്ങളിൽ അത് സവൻസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് കളിക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ട് ടീമുകളായി തിരിയും എന്നിട്ട് ഓട് മുകളിലേക്ക് മുകളിലേക്ക് അടുക്കി വയ്ക്കും ഒരു ടീം പന്ത് വച്ച് ആ ഓടിനെ എറിഞ്ഞിടും മറ്റേ ടീമിലെ ആളുകൾ ആ പന്തെടുത്ത് ഓപ്പോസിറ്റ് ടീമിനെ എറിയണം അപ്പോൾ എറി കൊള്ളുന്ന ആൾ ഔട്ടാവുകയും ചെയ്യും മറ്റ് എറിഞ്ഞ ആ ടീം ആ ഓടുകൾ നിരത്തി പഴയ പോലെ വയ്ക്കേണ്ടതാണ് അങ്ങനെ ഒരു കളി എല്ലായിടത്തും കളിക്കുന്നതാണ് പക്ഷെ പേരിന് മാത്രമേ മാറ്റമുള്ളു പിന്നെ കളിക്കുന്നതാണ് ഫുട്ബോൾ അതും ചെളിയിൽ കളിക്കാറുണ്ട് കുട്ടികൾ എല്ലായിടത്തെയും പോലെ തന്നെ ഒരേ നിയമം തന്നെയാണ് പക്ഷെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വേണ്ടുന്നത്ര അംഗബലം ഇല്ലാത്തത് കൊണ്ട് ടീമിലെ അംഗങ്ങൾ കുറവായിരിക്കും അത്കൊണ്ട് അത് അനുസരിച്ചായിരിക്കും എല്ലാവരും കളിക്കുക പരിമിതമായ ഏരിയയിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ അവൾ സ്വന്തമായിട്ട് തന്നെ ഇനങ്ങനെയൊക്കെയാണ് ഫോർ പോവേണ്ടത് സിക്സ് പോവേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഔട്ടാകും എന്ന് അവർ സ്വന്തമായിട്ട് റൂളുകൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ബിസ്ക്കറ്റ് കടിയുണ്ട് ചില സ്ഥലത്ത് അത് ബണ്ണുകൾ കടിക്കുന്നതാണ് അത് ഒരു കയറിൽ ബിസ്കറ്റുകൾ തൂക്കിയിട്ട് അതിനെ ഇങ്ങനെ പൊക്കും അപ്പോൾ അത് കടിക്കാൻ ശ്രമിക്കണം അതൊരു കളിയുണ്ട് പിന്നെ കോൽക്കളിയുണ്ട് ഗോലി എറിഞ്ഞുള്ള കളിയുണ്ട് പിന്നെ പലതരം കളികളുണ്ടെങ്കിലും ഇത് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല പേരിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് അല്ലാതെ റൂൾസിനൊന്നും അവിടെ വ്യത്യാസം വരുന്നില്ല